ഞാൻ കാണാറുള്ള ഏഷ്യാനെറ്റ് ചാനൽ ഏഷ്യാനെറ്റിൽ വാർത്തകൾ ഒരു മണിക്കൂർ വരെ കാണും അതിൽ സീരിയൽ മൂന്നാലെണ്ണം കാണും സിനിമയാണെങ്കിലും സിനിമ കാണണത് അപൂർവ്വമാണ് അങ്ങനെ കാണാറില്ല റേഡിയോയിലെ പാട്ട് രാവിലെ അഞ്ചുമുതൽ ഏഴുമണിവരെയാണെങ്കിലും ഞാൻ കേൾക്കാറുണ്ട് സൂര്യ ടി വിയിൽ രണ്ടുമൂന്ന് സീരിയലുകൾ കാണും പരസ്യങ്ങൾ കാണും പക്ഷേ ഈ സീരിയലിലാണെങ്കിലും നമുക്ക് അതപ്പം കണ്ട് അപ്പോൾ കളയണം ചിലരങ്ങനെയല്ല അത് തന്നെ മനസ്സിൽ വെച്ച് അത് ഭയങ്കരമായി ദോഷം ചെയ്യും സിനിമ ഇത് ടെലിവിഷനിലൊക്കെ ഒരുപാട് അപകടങ്ങളുമുണ്ട് എന്നാൽ ഗുണവുമാണ് ദോഷവുമാണ് റേഡിയോ സംബന്ധിച്ച് അങ്ങനെയല്ല ഇത് കേൾക്കുന്നതു മാത്രമേ ഉളളൂ കാണുന്നില്ല അപ്പം അത്രത്തോളമേയുള്ളു ടി വിയിലെന്നുവെച്ചാൽ അങ്ങനെയല്ല അമ്മയമ്മയും മരുമകളെ എങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ മരുമോൾ അമ്മായിയമ്മയെ എങ്ങനെ കൊല്ലാം അടുത്ത വീട്ടിലുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാം ഇങ്ങനത്തെ സീരിയലാണ് ഇന്ന് ടി വിയിൽ മൊത്തവും ഒരു വീട്ടിലെങ്ങന വീട്ടിൽ വഴക്കുണ്ടാക്കാം ഈ സീരിയൽ വെക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ വഴക്കാണ് മക്കൾ വെക്കാൻ സമ്മതിക്കില്ല മക്കളില്ലാത്തപ്പോഴെ ഞാൻ കാണു മക്കൾ പറയും വേറെ എന്തെല്ലാം നല്ല നല്ല പരിപാടിയുണ്ട് ഈ അമ്മായിയമ്മയും മരുമകളും കൂടെയുള്ള വഴക്ക് വഴക്ക് എന്തിനാണ് അമ്മ കാണണത് വേറെ എന്തെല്ലാം നല്ല നല്ല പരിപാടികളുണ്ട് അത് കണ്ടുകൂടെ പിന്നെ സഫാരിയൊ ന്യൂസ് ചാനലോ ഒന്നുമില്ലെങ്കിൽ നല്ല നല്ല ഇതുണ്ട് അമ്മയിതൊന്നും കണ്ട് ഇത്രയും നല്ല പരിപാടികളുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സീരിയലിൻ്റെ നിലവാരം എന്നുവെച്ചാൽ എല്ലാ പെണ്ണുങ്ങൾക്കും വീട്ടിലിരിക്കണവർക്കും ഇഷ്ടമായിരിക്കും ഞാനും ഒരെണ്ണമോ രണ്ടെണ്ണമോ കാണും പക്ഷെ ചിലപ്പോൾ അതുപോലും എനിക്ക് കലിവരും ഈ മരുമകളെ ഉപദ്രവിക്കണതും അമ്മായിയെ തിരിച്ച് ഉപദ്രവിക്കണതും വീട്ടിൽ വഴക്കുണ്ടാക്കണതും കൊല്ലണതും ഓഹ് എങ്ങനെയൊക്കെ വീട്ടിൽ വഴക്കുണ്ടാക്കും അതെല്ലമാണ് ഇപ്പോൾ ചില വീട്ടിലിരിക്കുന്ന അമ്മമാർ ഓഹ് എന്നേയും അതേപോലെയാണെന്നും പറഞ്ഞുകൊണ്ട് പലയിടത്തും ഇതേ സംഭവം വഴക്ക് ബഹളവും നടക്കണുണ്ട് ഇത്രയും ഇത്രയും മോശമായി അമ്മായിയും മരുമകളും വീട്ടുകാരും അടുത്ത വീട്ടുകാരുമായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടൊ അത് ചിലരെ മനസ്സിൽ അതു കിടന്ന് അതുതന്നെയാണ് ഇപ്പം നമ്മൾ ദൃശ്യം സിനിമ കാണുമ്പോലെയാണ് ഇപ്പം മിക്കയിടത്തും നടക്കണത് ചില സെനേര്യോയിൽ കാണുമ്പോലെയാണ് മിക്കയിടത്തും നടക്കണത് സിനിമയാണെങ്കിൽ നല്ല സിനിമയുണ്ട് ഉണ്ട് നല്ല എല്ലാ സിനിമകളുണ്ട് പക്ഷെ ഇപ്പോഴത്തെ സിനിമ ഇത്ര നിലവാരമില്ല എന്നാലും ചെറിയ ചില സിനിമകളൊക്കെ നല്ല സിനിമകളാണ് റേഡിയോയാണെങ്കിൽ നമുക്ക് വാർത്ത കേൾക്കാം പാട്ടു കേൾക്കാം നല്ല ഇതാണ് നമ്മളെ വിനോദ മാധ്യമങ്ങൾ പക്ഷേ ചിലത് ദോഷത്തിലുപരി മൊബൈലാണെങ്കിൽ നമുക്ക് ഉപകാരമാണ് ഏറ്റവും നല്ല ഉപകാരമാണ് പക്ഷേ അതിൽ ഉപരി അത് ദോഷം ചെയ്യുന്നതും ഉണ്ട് എല്ലാം കണക്കിനായാൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല ദൂരെ തൊട്ടടുത്ത് വിളി കേട്ടാൽപ്പോലും അല്ലെങ്കിൽ വീട്ടിൽത്തന്നെ എന്തു നടന്നാലും അവരറിയുന്നില്ല അവരിതും വച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും ഓരോ മുറിയിലും മൊബൈലുമായിട്ട് ഇരിക്കും ഇപ്പുറത്ത് എന്തു നടന്നാലും ആരും അറിയുന്നില്ല അതാണിപ്പോഴത്തെ ലോകം